ഹലോ കേട്ടില്ലല്ലോ ആ ഞാൻ ഇത് ഹോൾസെയിൽ ഇത് ഹോൾസെയിൽ തുണിക്കടയാണല്ലോ എന്താണ് വിളിച്ചത് മഹാ മഹാലക്ഷ്മി തുണിക്കടയാണ് മഹാലക്ഷ്മി ആ ഓ പറഞ്ഞോളൂ നമ്മൾ എല്ലാത്തിനും രണ്ട് ശതമാനം കമ്മീഷൻ ആണ് കൊടുക്കുന്നത് ആ പിന്നെ നമ്മൾ നമ്മൾ വെൽ ആ വില അനുസരിച്ച് നമ്മൾ അത് അതനുസരിച്ച് കൊടുക്കുന്നു ഹോ ഹോൾസെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ രണ്ട് ശതമാനമാണ് കൊടുക്കുന്നത് പിന്നെ ഓയിൽ സാരിയുടെ സാരി ആണെങ്കിലും മറ്റ് സാധനങ്ങൾ വില കൂടിയുള്ള സാധനത്തിന് അതനുസരിച്ചുള്ള കമ്മീഷൻ ഉണ്ടാകും വിറ്റഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് സാധനം നമ്മൾ തിരിച്ചെടുക്കും ആ ആ ആ കുറച്ച് നിങ്ങൾ അങ്ങ് നിങ്ങൾ അങ്ങ് അങ്ങനെ റിട്ടേൺ ചെയ്യാതെ നിങ്ങൾക്ക് വിറ്റ് പോകത്തക്ക രീതിയിലുള്ള സാധനം നിങ്ങൾ എടുത്തിട്ട് പോകാൻ ശ്രമിക്കുക അധികമായ സാധനം എടുത്തുകൊണ്ട് പോകാതെ നിങ്ങൾക്ക് വിറ്റ് പോകാൻ തക്ക രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ എടുക്കുക പിന്നെ അമിത വിറ്റ് ആ അപ്പോൾ ഓരോ സാരി ഒക്കെ

ഓക്കെ അപ്പോൾ ചെയ്തോളൂ പക്ഷെ ഓരോ സാധ സാധനങ്ങൾക്കൊരു ഡാമേജ് ഇല്ലാതെ നമുക്ക് തിരിച്ച് നമ്മൾ തരുന്ന പാക്കേജ് അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് തരുവാണെങ്കിൽ നമ്മൾ എടുക്കാം കുഴപ്പമില്ല എടുക്കുന്നതിന് എന്താണ് കുഴപ്പം

നിങ്ങൾ നേരത്തേ മുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണോ ഇതേപ്പറ്റിയുള്ള പരിജ്ഞാനങ്ങളൊക്കെ ഉണ്ടോ ആ ഉവ്വ്

ആ കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല ഓക്കെ ഓക്കെ കുഴപ്പം ഇല്ല ഞങ്ങൾ തരാം തരുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല അപ്പോൾ കമ്മീഷൻ ഈ വ്യവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ രണ്ട് ശതമാനം വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത് പിന്നെ കൂടുതൽ സാധനം എടുത്ത് കൂടുതൽ തുണി എടുക്കുന്നതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും തരും ഓ അവർക്ക് അതാണ് ഒരു കേടുപാട് പോലും ഇല്ലാതെ നമ്മല തരുന്ന സാധനം അത് അതേപോലെ തന്നെ നമുക്ക് തിരിച്ചുതരണം മനസ്സിലായോ കസ്റ്റമറുടെ അടുത്ത് കൊണ്ട് തുറന്നിട്ട് ഇത് നിവർത്തി കാണിച്ച് അതൊക്കെ ആയിക്കഴിഞ്ഞാൽ

ഓക്കെ ആ എങ്ങനെയാണോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സൗകര്യം അതനുസരിച്ച് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിനകത്ത് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പാക്ക് ചെയ്ത് ബസ്സിൽ കയറ്റിവിടും നിങ്ങൾ പോയി ആ സ്പോട്ടിൽ പോയി നിങ്ങൾ ഏത് ബസ് സ്റ്റാൻഡ് എവിടെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അവിടേക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ വേണമെങ്കിൽ ഞങ്ങൾ അയച്ച് തരാം അങ്ങനെ മിസ് ആകില്ല കാരണം നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ പലർക്കും നമ്മൾ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് അയയ്ക്കുന്നുണ്ട് ഇങ്ങനെ അയച്ച് നമ്മൾ അയച്ചുകൊടുക്കാറുണ്ട് ഇല്ല ബുദ്ധിമുട്ടില്ല ഇത് നിങ്ങൾ സ്ഥലം പറ സ്ഥലം അഡ്രസ്സ് ഒക്കെ തന്നാൽ മതി നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ച് തരും ട്രാൻസ്പോർട്ട് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും നമ്മൾ ക നമ്മുടെ കടയ്ക്ക് ഇതുണ്ട് നമുക്ക് ഓൾറെഡി പൈസ അടയ്ക്കുക തന്നെ വേണം ആദ്യം അടയ്ക്കുക തന്നെ വേണം നിങ്ങൾ തിരിച്ച് എന്തെങ്കിലും സാധനം കൊണ്ടുവരുവാണെങ്കിൽ അതിന് ബിൽ ഞങ്ങൾ ഇവിടുത്തെ ബിൽ നിങ്ങൾ കൊണ്ടുവരണം ഞങ്ങൾ റിട്ടേൺ തരും റിട്ടേൺ തരത്തേയുള്ളൂ ഓ ഓക്കെ താങ്ക് യു